ഇന്ത്യയിലെ ഗതാഗത സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് വലിയ മോശമൊന്നും അല്ലാത്ത സംവിധാനമാണ് നമുക്ക് എയ്റോപ്ലെയിൻ ഉണ്ട് ആ തീവണ്ടി ഉണ്ട് പിന്നെ കാറ് ബൈക്ക് ജീപ്പ് ബസ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിലും ഒരു വണ്ടി പോലും ഇല്ലാത്ത വീടുകള് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുവാണെങ്കില് പിന്നെന്ന് വെച്ചിട്ടിണ്ടെങ്കില് ഗതാഗത മാർഗങ്ങങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും അതായത് തീവണ്ടി ബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മള് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റോഡിൻ്റെ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചിണ്ടെങ്കില് കുണ്ടും കുഴികളും ഇല്ലാത്ത റോഡ് വളരേ കുറവാണ് ഇപ്പം ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ ഉണ്ടാകും കുണ്ടും കുഴിയും കാര്യങ്ങളക്കെ അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് ഓരോ നേതാക്കൻമാരടുത്ത് ഇങ്ങനെ കാശ് വന്ന് വന്ന് അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് റോ അതായത് റോഡ് പണി നടത്തുമ്പം മെയിനായിട്ട് നല്ല രീതിയില് റോഡ് പണി നടത്തുകയില്ല ജസ്റ്റ് ഒരു ഒരു കോട്ടിട്ട് കഴിഞ്ഞാൽ അവര് പ പണി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫിനിഷിംഗ് കൊടുത്ത് അവരങ്ങ് പോകും അപ്പം അതാണ് മെയിൻ പ്രശ്നം വരുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ എങ്ങനെയാണ് മെച്ചപ്പെടുത്തന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടേൽ ട്രാഫിക് ബ്ലോക്ക് പിന്നെ ആക്സിഡന്റ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങള് അവ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റോഡ് മര്യാദയ്ക്ക് അതായത് റോഡ് മര്യാദയ്ക്ക് ഇതാക്കുക പിന്നെ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കുക